ദൈവങ്ങൾ വളരെ അധികം ഒരു സ്ഥലത്തെ സാ സാമ്പത്തികാവസ്ഥയും അവിടുത്തെ സാമൂഹിക ആൾക്കാരേയും എല്ലാവരേയും സഹായിക്കാൻ വേണ്ടി വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇവിടുത്തെ മാധ്യമം മാധ്യമം വഴി പല വാർത്തയും വെളിയിൽ എത്തുമ്പഴത്തേക്കുമാണ് ലോകം ഇങ്ങനൊരു സ്ഥലം ഇവിടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാഴ്ച്ച ഇവിടുണ്ട് ഇങ്ങനെ ഈ വിഭാഗത്തിലുള്ള ആൾക്കാരിവിടെ താമസിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് മാധ്യമങ്ങളിലൂടെ വ വാർത്ത അധികം വെ അധികം ആൾക്കാരിലോട്ട് എത്താൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാധ്യമം ഇല്ലെങ്കിൽ ഒരിക്കലും പുറം ലോകം ഇങ്ങനൊരു സ്ഥലത്ത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ചറിയാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ കുട്ടിക്കാനം പോലൊരു സ്ഥലമാണേലും ഇപ്പം ഇതൊരു ടൂറിസം അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോഴും വരുന്ന വിനോദ സഞ്ചാരികൾ ഇവിടെ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ മാധ്യമം വഴി ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റ് ജനങ്ങളിലോട്ടെത്തിയ കൊണ്ടാണ് ഒരിക്കലും ഇങ്ങനത്തൊരു സ്ഥലത്തെക്കുറിച്ചുള്ള വാർത്തകളോ വിവരങ്ങളോ മറ്റുള്ളവരുടെ അടുത്തെത്തിയില്ലങ്കിൽ ആരും തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ സാധ്യതയില്ല അത് കാരണം ഈ ഇടുക്കിയുടെ ഉൾപ്രദേശത്തിരിക്കുന്ന ഈ ഒര് ഗ്രാമ ഗ്രാമത്തിൽ ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്തകൾ വെ വെളിയിലെത്തിയില്ലങ്കിൽ ആൾക്കാരിലെത്തിയില്ലങ്കിൽ ഒരിക്കലും ആരും ഈ സ്ഥലത്തെ അറിയത്തുമില്ല ഈ സ്ഥലം തേടി വരത്തുമില്ല ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ കാരണം തന്നെ മാധ്യമമാണ് പിന്നെ ആൾക്കാർ ഈ സ്ഥലത്തിലോട്ട് പോകുന്നത് കൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതികൾ വളരെയധികം മുന്നേറും അതായത് ഇവിടെ ആൾക്കാർക്ക് താമസിക്കാൻ ഹോട്ടലുകള് വരും അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണ ശാലകൾ വരും പിന്നെ ഇന്ധനമടിക്കാൻ പെട്രോൾ പമ്പുകൾ വരും അങ്ങനെ ആൾക്കാർ അധികം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വ്യാപാരം ഉയർത്താനുള്ള സാഹചര്യം വളരെയധികം കൂടും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലാണ് ഈ ഈ സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ മാധ്യമത്തിൻ്റെ വലിയൊരു കയ്യുണ്ട് ഇതേ സ്ഥ ഒരു ഒരു സ്ഥലത്തെ മുന്നോട്ട് കൊണ്ട് പോകാനും ആ സ്ഥലത്തെ പിൻ പിൻവാ പിന്തള്ളി പോയാലും മാധ്യമത്തെ കൊണ്ട് സാധിക്കും വളരെ അധികം മാധ്യമം മാധ്യമങ്ങൾ ഒരു സ്ഥലത്തെക്കുറിച്ച് മോശമായിട്ടുള്ള വാർത്തകൾ പുറത്ത് വിടാൻ തുടങ്ങിയെങ്കിൽ അത് ജനത്തിൻ്റെ ഒഴുക്കാ സ്ഥലത്തോട്ടുള്ളത് വളരെയധികം കുറയാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം തന്നെ കഴിഞ്ഞ വർഷം ഗോവയിൽ സന്ദർശിച്ച് സൻ സഞ്ചരിച്ച് സഞ്ചാരികളുടെ എണ്ണമെടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ മുന്നത്തെ വർഷത്തെ കാട്ടിലും എണ്ണത്തിൽ കുറവ് തോന്നുന്നുണ്ട് കാരണം മാധ്യമങ്ങള് മാധ്യമത്തിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് ഗോവ ഇവര് ഗോവ ഇപ്പം ടൂറിസ്റ്റ്കൾക്ക് പോയി കറങ്ങാനും സമയം ചെലവഴിക്കാനും പറ്റിയ നല്ലൊരു സ്ഥലം അല്ലെന്നാണ് മാധ്യമവാർത്തകളിലൂടെ പുറത്ത് വരുന്നത് ആ ഒരു വാർത്ത ആ സ്ഥലത്തോട്ടുള്ള ജനത്തിൻ്റെ ജനത്തോട് ജനങ്ങൾ എത്തിച്ചേരുന്നത് കൊണ്ട് വളരെ അധികം കുറച്ചേ ഉള്ളായിരുന്നു അത് തന്നെ അല്ല ആ സ്ഥലത്തോട്ടുള്ള ആൾക്കാരുടെ ആ ചിന്താഗതിയും ഇങ്ങനെ സമൂഹ വാർത്തകൾക്കും മാറ്റി മറിക്കാൻ പറ്റുക ദേ ഇപ്പം വളരെ അടുത്ത് തന്നെ നമ്മള് വാർത്തകളിലൊക്കെ വായിച്ചായിരുന്നു തായ്ലൻഡ് വിയറ്റ്നാം എന്നീ സൗത്തേഷ്യൻ രാജ്യങ്ങളിലോട്ടുള്ള ജന ഒഴുക്ക് വളരെയധികം കൂടിയിട്ടുണ്ട് അതായത് ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങളാണേലും ഇന്ത്യയിൽ ഉള്ള ഒരു സ്ഥലം കാണുന്നതിന് പകരം അതേ ചിലവിൽ അത് പുറം രാജ്യങ്ങളായ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ ഇന്തോനേഷ്യ എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം ഇവിടുന്നുള്ള ജനം ആ അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് ചെല്ലുവാണെങ്കിൽ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി വരെയധികം ഉയരും അവിടുത്താൾക്കാർക്ക് ജോലികൾ കിട്ടും അവർക്ക് വേണ്ട എല്ലാ ബേസിക് ഫെസിലിറ്റീസും അവിടെ സ്വയം തന്നെ വന്നോളും അതോട് കൂടി തന്നെ അവരുടെ സാമ്പത്തിക നില അതായത് അവരുടെ സാമ്പത്തിക ഭദ്രത കൂടും പിന്നെ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ഉള്ള ഒഴുക്ക് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില താഴോട്ട് പോകാനുള്ള സാദ്ധ്യതകളും വളരെയധികം കൂടുതലാണ് അപ്പം ഈ സ് ഈ വാർത്തകൾ ഈ പുറത്ത് വിടുന്നതിൽ വളരെയധികം ഇതിൽ വളരെയധികം റോളുണ്ട് ഈ ആൾക്കാരുടെ ജീവിതത്തിൽ ഇത് കാരണം ഒരു സ്ഥലം പുരോഗമിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു സ്ഥലം നശിച്ച് പോകാനുള്ള അവസരവും വളരെയധികം കൂടുതലാണ്